ഹലോ ഞാൻ ഇന്നലെ നിങ്ങളെ വിളിച്ച് ഏർപ്പാടാക്കിയ ദുബായീന്ന് വന്ന ജിമ്മി ജെയിംസാണേ ഞാൻ നിങ്ങളുടെ ബാ ബാങ്ക് അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ട്രാൻസഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ക്യാ ക്യാബിൻ വേണമായിരുന്നു തിരുവനന്തപുരം വരെ പോകാനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ വിളിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിക്കണം എന്ന് പറഞ്ഞത് പറഞ്ഞത് ഇപ്പോളെനിക്ക് മെസ്സേജ് വന്നിരിക്കയാണ് ഈ ക്യാ ക്യാബ് റദ്ദാക്കിയിരിക്കുവാന്നുള്ള ഉള്ള ഒരു മെസ്സേജെനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ റദ്ദാക്കീട്ടുണ്ടെങ്കിൽ ഞാനടച്ച പണം എനിക്ക് തിരികെ ലഭിക്കണം ആ ഒരു കാരണത്തിനാണ് ഞാൻ ഇപ്പം വിളിച്ചിരിക്കുന്നത് ഞാൻ വേറെ വണ്ടി ഞാൻ ഓർഡറ് ചെയ്തോളാം ഞാൻ വിളിച്ച് ഞാൻ ശരിയാക്കിക്കോളാം നിങ്ങൾ എന്നോട് ആറായിരം രൂപയാണ് പറഞ്ഞത് ഞാൻ ഉള്ളിൽ രണ്ടായിരം രൂപ അഡ്വാൻസായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി അയച്ചിട്ടുണ്ട് അത് നിങ്ങളെനിക്ക് കൺഫേമാക്കീട്ട് നിങ്ങളെനിക്ക് എന്നോട് പറയൂം ചെയ്തതാണ് ഇത്ര വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് റദ്ദാക്കി പക്ഷേ എനിക്കെൻ്റെ പൈസ കിട്ടണം അത് എങ്ങനെയാണ് എനിക്ക് തരാൻ വേണ്ടി പറ്റുന്നത് എത്രയും പെട്ടെന്നെനിക്ക് തരണം അത് ഒന്നെങ്കിൽ എൻ്റെ എൻ്റെ അക്കൗണ്ടിലേക്ക് തിരികെ തരുക അല്ലെങ്കിൽ നിങ്ങൾ നെടുമ്പാശ്ശേരി തന്നെ ഉള്ള ആളാണല്ലോ ഞാൻ ഞാൻ വരുമ്പോൾ നിങ്ങളെ വിളിച്ചോളാൻ നിങ്ങൾ ക്യാഷായിട്ട് തന്നാലെനിക്ക് കുഴപ്പം ഇല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പറയുവാണെങ്കിൽ ഞങ്ങൾ കംപ്ലയിൻറ്റ് പോലീസിലറിയിച്ചോളാ അതുകൊണ്ട് എൻ്റെ ഗൂഗിൾ പേ എൻ്റെ നമ്പറ് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ അതായത് ഞാൻ വിളിക്കുന്ന നമ്പറിലില്ല എൻ്റെ ഗൂഗിൾ പേ നമ്പറല്ല അല്ലെ ഒന്നുങ്കിൽ നിങ്ങൾക്ക് ബാ ബാങ്ക് ട്രാൻസ്ഫറ് വേണേൽ ചെയ്യാം അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ തരാം അല്ലെങ്കിൽ എൻ്റെ ഗൂഗിൾ പേ ഉള്ള നമ്പറ് ഞാൻ നിനക്ക് തരാം നിങ്ങൾക്ക് തരാം നിങ്ങൾക്കെന്താണ് കൂടുതാലായിട്ട് ചെയ്യാൻ വേണ്ടീട്ട് താൽപ്പര്യംന്ന് വെച്ചാൽ അതായത് ഏതിനുള്ളിൽ കൂടെ ചെയ്യാനെളുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി അക്കൗണ്ട് നമ്പറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എൻ്റെ എസ് ബി ഐയിലാണുള്ളത് അല്ല സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണുള്ളത് അപ്പം ഞാനത് എൻ്റെ നമ്പറ് നിങ്ങൾക്ക് പറയാം സീറോ സീറോ വൺ ത്രീ സീറോ സീറോ സീറോ ഫൈവ് നൈൻ എയ്റ്റ് വൺ ടു വൺ സീറോ അത് ചങ്ങനാശ്ശേരി ബ്രാഞ്ചാണ് ഞാൻ അത് എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസാണ് തന്നിരിക്കുന്നത് ഫോൺ നമ്പറാണെങ്കിൽ എൻ്റെ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നൈൻ വൺ സിക്സ് എയ്റ്റ് ടു ഫോർ എന്ന നമ്പറിലാണുള്ളത് നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടന്ന് ക്യാച്ച് ചെയ്യാം പറ്റീല്ലെങ്കിൽ ഞാൻ ഈ നമ്പറിൽ ഒന്നുങ്കിൽ എസ് എം എസ് എസ് എം എസ് ചെയ്യുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറാണെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം എനിക്ക് തീർച്ചയായിട്ടും പൈസ ഇന്ന് തന്നെ ഇട്ട് തരണം ഇട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾക്കെന്തേലും പറയാനുണ്ടെങ്കിൽ ഇപ്പം പറയുക അല്ലെങ്കിൽ ഞങ്ങൾ പോലീസി കംപ്ലയിൻറ്റ് ചെയ്ത് ഇങ്ങനെ എത്രയും പെട്ടന്നത് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആയിരിക്കും